മത്സ്യ ബന്ധനത്തിന് ഇറങ്ങുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് കാലാവസ്ഥ അതിൽ ഞാനിതു വരെ അങ്ങനെ വലിയ പ്രശ്നങ്ങളിൽ ഒന്നും പോയി ചെന്ന് ചാടിയിട്ടില്ല കാരണം നമ്മൾ ഗവൺമെൻറ് നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മൾ മത്സ്യബന്ധനത്തിന് പോകാറുള്ളത് വിഷമകരമായ വിഷമകരമായ നിമിഷങ്ങൾ വരാറുണ്ടെങ്കിലും അത് ആ സാഹചര്യങ്ങളെ തടുത്ത് നിർത്താനുള്ള സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ മത്സ്യ ബന്ധനം നടത്താറുള്ളത് മഴയിലും കാറ്റിലും പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും നമക്ക് അതിനുള്ള സേഫ്റ്റികളും മറ്റും കാര്യങ്ങളും എല്ലാം കരുതിയാണ് നമ്മൾ മത്സ്യ ബന്ധനത്തിന് ഇറങ്ങാറുള്ളത് ചില സമയങ്ങളിൽ മത്സ്യം കിട്ടാത്ത അവസ്ഥയുണ്ട് ചില ട്രോളിങ് നിരോധനം അങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ ജീവിക്കാൻ പെടാപ്പാട് പെടാറുണ്ട്